ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഞാൻ ഒരു ഞാൻ ഇപ്പോൾ വീട്ടിൽ തന്നേയാണ് വർക്ക് ഒന്നും ചെയ്യുന്നില്ല അപ്പം വീട്ടില് കോഴി അതുപോലത്തന്നേ പശു അങ്ങനെയുള്ള ജീവികളൊക്കെ അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരേ അവരെ ഒക്കെ കോഴി ആണെങ്കില് കോഴീനെ ഒക്കെ നോക്കി കോഴീൻ്റെ മുട്ട വിറ്റൊക്കെയാണ് ഇപ്പോൾ പോകുന്നത് അപ്പം എന്താന്ന് വച്ചാല് അങ്ങനെ ആകുമ്പോൾ കുഴപ്പമൊന്നുമില്ല വീട്ടില് ഇരുന്ന് തന്നേ ഓരോ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ വെറുതെ ഇങ്ങനെ വീട്ടിൽ ഇരിക്കുവാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ജോലി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ വീട്ടില് വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയം കൊണ്ട് നമക്ക് അ ആ മൃഗങ്ങളെ പരുപാലിക്കുകയോ അവരൊ അവരോട് കൂടുതൽ അടുക്കുകയൊക്കെ ചെയ്യാൻ കഴിയും അതുകൊണ്ടാണ് അ ആ ജോലി ഞാൻ തിരഞ്ഞെടുത്തത്